അതെയല്ലോ

എന്താ രാവിലെ കഴിച്ചത് ഓ ഓ എന്നാൽ വല്ല ഫുഡ് പോയ്സൺ എങ്ങാനുമായിരിക്കും ഫുഡ് പോയ്സൺ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വരുമല്ലോ ഞാൻ കുറച്ച് ടെസ്റ്റൊക്കെ പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽമതി ആണോ എന്നാൽ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും ആ ചെയ്യണം ഏയ് അതിൻ്റെ ചാൻസ് കുറവാണ് ആ അത് ഫുഡിൻ്റെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഫുഡ് പോയ്സൺ ലൈക്ക് എന്തെങ്കിലുമായിരിക്കും പഴകിയ ഫുഡായിരിക്കും ഏയ് അതിൻ്റ ചാൻസ് ഉണ്ടെങ്കിൽത്തന്നെ നാളെ ഒന്നുവന്ന് ടെസ്റ്റ് ചെയ്താൽ മതി ആ അതെ നാളെ അതൊരാളെ വിളിച്ച് എണീപ്പിച്ചുകൂടെ ഒരു അര അര കഴിച്ചേയ്ക്കൂ ഒരു റിലാക്സേഷനുവേണ്ടി ഗുളികേൻ്റെ പകുതി ഓ മതി മതി

ആ ആ അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നാളെ രാവിലെ വന്നാൽമതി നാളെ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് വരൂ കേട്ടോ ഓ ശരിയെന്നാൽ